ഇപ്പം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അവധി ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമുക്ക് എല്ലാ സ്ഥലത്തും കാണപ്പെടുന്നത് ക്രിസ്തുമസാണ് ക്രിസ്തുമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസംബർ മാസത്തിൽ ഒരു ഇരുപത്തഞ്ചാം തീയതിയാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് അതായത് ഉണ്ണിയേശു പിറന്നൊരു നാളായിട്ടാണ് അവർ കണക്കാക്കുന്നത് അപ്പോൾ അത് എല്ലാ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും അത് ആഘോഷിക്കുന്നുണ്ട് അതായത് ഉണ്ണിയേശു പിറന്നു അന്നാണ് അതായത് ക്രിസ്മസ് പാപ്പാ വന്ന് എല്ലാവർക്കും സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത് ഇത് ഒന്നാമത്തത് പിന്നെ ഇന്ത്യയിൽ വേറെ ആഘോഷിക്കുന്നത് പറഞ്ഞാൽ ദീപാവലി ദീപാവലി എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നതാണ് ദീപാവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ എല്ലാ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ആഘോഷിക്കുന്നതാണ് കൂടുതലായിട്ടും തമിഴ്നാട്ടുകാർക്കാണ് ദീപാവലി ഭയങ്കര ആഘോഷമായിട്ട് നടത്തുന്നത് പിന്നെ വിനായക ചതുർത്തി എന്ന് പറഞ്ഞിട്ട് അത് നടത്തുന്നുണ്ട് അതായത് വിനായക അതായത് ഗണപതീൻ്റെ ഇതിനെക്കുറിച്ചാണ് നടത്തുന്നത് അതും എല്ലായിടത്തും നടക്കുന്നുണ്ട് പിന്നെ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം ആഘോഷിക്കുന്നുണ്ട് ഓണം കേരളത്തിലെ പ്രധാന ഒരു ഉത്സവമാണ് പിന്നെ വിഷു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഘോഷിക്കാനുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാളാണ് ബെലിപെരുന്നാളും ചെറിയപെരുന്നാളും വലിയ പെരുന്നാളും ഇതും ആഘോഷിക്കുന്നുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് ഇന്ത്യയിലെ ആ ഉത്സവങ്ങളും അവധി ദിവസങ്ങളും ഒക്കെയായിട്ട് കണക്കുകൂട്ടുന്നത്